കോട്ടയം ജില്ലയിൽ ആണെങ്കിൽ കുറെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട് അതിലൊന്നാണ് നമ്മുടെ ഇല്ലിക്കൽകല്ല് എന്ന് പറയുന്നേ ഇല്ലിക്കൽകല്ല് എന്ന് പറയുന്നത് ഒരു വലിയ മൗണ്ടൈൻ ആണ് നമ്മളുടെ ഭൂമിയിൽ നിന്നും കുറച്ചധികം ഉയരത്തിൽ സ്ഥിതിചെയ്യുന്ന ഒരു വലിയ മൗ മലയാണ് അത് നമുക്ക് അവിടെ അങ്ങനെ എന്താണ് പറയുക നമുക്ക് പ്രകൃതി പരമായ രീതിയിലുള്ള കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് വൈകുന്നേരങ്ങളിൽ പോയി കഴിഞ്ഞാൽ മഞ്ഞും കാര്യങ്ങളും നല്ല കാറ്റും അത് നമുക്ക് ഭയങ്കര ഒരു മൈൻഡ് റിലാക്സ് ചെയ്യാൻ നമുക്ക് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നമുക്ക് പോയി കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് നമുക്ക് തിരിച്ച് വരാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു പ്ലെയ്സ് ആണ് ഇല്ലിക്കൽകല്ല് എന്ന് പറയുന്നത് ഇവിടുന്ന് കോട്ടയത്ത് നിന്നൊരു ടൗണിൽ നിന്നാണെങ്കിൽ ഇവിടുന്ന് ഒരു ഒരു മൂന്ന് നാല് കിലോ അല്ലെങ്കിൽ മൂന്ന് നാല് മണിക്കൂറിന് നമുക്ക് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലിക്കൽകല്ല് എത്താൻ പറ്റും നമുക്ക് വാഗമൺ പോകുന്ന റൂട്ട് ആണ് ഇത് നമുക്ക് എന്താണ് പറയുക നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഔട്ടിങ് പോകുമ്പോൾ ഈ ഒരു പ്ലെയ്സ് തിരഞ്ഞെടുക്കുവാണെങ്കിൽ നല്ലൊരു ബെറ്റർ ഒരു ഓപ്ഷൻ ആണ് അത് നമുക്ക് ആണെങ്കിൽ എന്താണ് പറയുക നല്ല നമുക്ക് പോയി കണ്ട് ആസ്വദിച്ച് നമുക്ക് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാവുന്ന ഒരു പ്ലെയ്സ് ആണ്